തൊണ്ടയടപ്പ് അല്ലെങ്കില് തൊണ്ടവേദന വളരെയധികം അനുഭവപ്പെടുന്നൊരു വ്യക്തി ആണ് ഞാന് കാരണം പലപ്പോഴും ക്ലാസ്സിലെ ഒരു ടീച്ചറാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയ പലപ്പോഴും തൊണ്ടവേദന അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കില് ഒച്ചയ്ക്കൊരു മാറ്റം വരാറുണ്ട് അതുപോലെ തന്നെ രാത്രിയില് ഫാനിൻ്റെ കാറ്റുകൊണ്ട് കിടന്നു കഴിയുമ്പോള് രാവിലെ ഒരു ഒച്ചയടപ്പ് അനുഭവപ്പെടാറുണ്ട് വാചികമായൊരു ക്ഷീണം കുറേ നേരം നമ്മള് സംസാരിച്ചു കഴിയുമ്പോള് നമ്മൾക്ക് എനിക്ക് ബുദ്ധിമുട്ടനുഭവപ്പെടാറുണ്ട് ഇത് മാറ്റാനായിട്ട് ഞാന് കുറച്ചൊക്കെ വായ്ക്ക് റെസ്റ്റ് കൊടുക്കാറുണ്ട് അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല അപ്പോള് ഒരു ഇച്ചിരി റെസ്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ നല്ല ചൂടുവെള്ളം തൊണ്ടവേദനയൊക്കെ വരുമ്പോഴ്ത്തേന് ചൂട് വെള്ളം കുടിക്കുക പിന്നെ കുരുമുളകിട്ട ക ചുക്കും കുരുമുളകൊക്കെ ഇട്ട കാപ്പി കുടിക്കുക തുളസി വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പൊടിക്കൈകളിലൂടെയാണ് ഞാന് തൊണ്ടവേദനയ്ക്കൊക്കെ പിന്നെ ഉപ്പ് വെള്ളം കവിളിൽ കൊള്ളും ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊടിക്കൈകള് പിന്നെ ചിലപ്പോഴക്കെ ഗുളികകള് കഴിക്കാറുണ്ട് അതാണ് അതാണെൻ്റെ തൊണ്ടയെ സംരക്ഷിക്കുന്നതിന് ഞാൻ പിന്നെ കുറച്ച് വോയിസ് റെസ്റ്റും നൽകാറുണ്ട് പിന്നെ കുരുമുളക് തൊണ്ടയ്ക്ക് വളരെ നല്ലതാണെന്നാണ് കേട്ടിരിക്കുന്നത് ഉപ്പും കുരുമുളകുമൊക്കെ തൊണ്ടയ്ക്കു വളരെ നല്ലതാണപ്പോള് ഇതടങ്ങിയ കാപ്പി കുരുമുളകും ചുക്കും ഇട്ട കാപ്പി ഉണ്ടാക്കി കുടിക്കോ തുളസിയൊക്കെയിട്ട കാപ്പി കുടിക്കാറുണ്ട് അപ്പത് തൊണ്ടയ്ക്കു വളരെ നല്ല ഒരാശ്വാസമുണ്ട് പിന്നെ ഉപ്പ് വെള്ളം കവിള് കൊള്ളുന്നതും തൊണ്ടയ്ക്കു നല്ലതാണ് ഈ രീതിയിലൊക്കെയാണ് ഞാനെൻ്റെ തൊണ്ട സംരക്ഷിക്കാറുള്ളത് പിന്നെ പൊടിക്കൈകളായിട്ട് പിന്നെ ഈ ചുമയുടെ ഒരു പൊടിയുണ്ട് അത് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ ആയിട്ട് ആയുർവേദപ്പൊടികള് ആയുർവേദ ലേഹ്യങ്ങളുമൊക്കെ കഴിക്കാറുണ്ട് ഇതാണ് പിന്നെ ചിലപ്പോള് ഇംഗ്ലീഷ് മരുന്നുകളും ഫോളോ ചെയ്യാറുണ്ട്